ഹലോ ആ സാറെ ഞാനൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ ആ ആ ആ പേര് ഗാഥ ആ ആ ഞങ്ങള് മൂന്ന് പേ മൂന്ന് പേരായിട്ടാണേ ആ ഇവിടെ നമ്മള് എറണാകുളത്തുന്നാണേ എറണാകുളത്ത് നിന്ന് ബാഗ്ളൂരിലേക്ക് പോകാനാ ആ അതെ അതെ അതെ അപ്പം നിങ്ങളെത്ര മണിയ്ക്കാണ് എത്തുക കറക്ട് ടൈമിനെത്തണോട്ടോ സാറെ എന്താന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങക്ക് അവിടെ അതായതു ട്രെയിൻ മിസ്സായിട്ടുണ്ടെങ്കിൽ അതായത് ബാംഗ്ലൂരിലേക്കാണ് അപ്പം ബാംഗ്ലൂര്ന്ന് ട്രെയിൻ മിസ്സായിട്ടുണ്ടെങ്കില് പിന്നെ ഭയങ്കര പ്രശ്നമാവും അതുകൊണ്ടാണ് കാരണം എനിക്കൊരു അർജൻറ്റ് മീറ്റിങുണ്ട് അത് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ടാണ് നിങ്ങളോടു ഒന്നൂടെ ഓർമിപ്പിക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നേ വിളിച്ചത് ആ എന്തായാലും നാളെ രാവില ഒരു ഏഴു മണി ആവുമ്പലത്തേക്ക് ഇവിടെ എത്തണേ ഞങ്ങളപ്പഴത്തേക്കു റെഡിയായിട്ടു നിക്കും ആ ആ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ഹ എന്ന ഓക്കെ സാർ താങ്ക്യൂ